പണ്ടൊക്കെ ഈ ക്രിസ്മസ് കാർഡുകളൊന്നും നമ്മൾ പൈസ കൊടുത്ത് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാറേ ഉണ്ടായിരുന്നില്ല മെയിനായിട്ട് നമ്മൾ ഇങ്ങനെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് നല്ല സ്കെച്ച് ഒക്കെ വെച്ച് കളർ ഒക്കെ ചെയ്ത് ക്രിസ്മസ് പാപ്പയെ ഒക്കെ വരച്ച് അതിൽ നല്ല നല്ല വരികൾ എഴുതി ആയിരുന്നു നമ്മൾ കൂട്ടുകാർക്കൊക്കെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കൈകൊണ്ട് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഐഡിയായിൽ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്കത് കണക്കാക്കാം ഇപ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ ഏത് രീതിയിലുള്ള സാധനങ്ങളും നമുക്ക് കിട്ടും പക്ഷേ പണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചുമ്മാ എന്താ ഈ പറയാ ചടങ്ങ് തീർക്കുക എന്ന് പറയുന്ന ഒരു രീതി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പണ്ടെന്ന് വെച്ചാൽ നമ്മളത് ആയാൾക്ക് കൊടുക്കണം എന്ന രീതിയിൽ തന്നെ അതിനായി മെനക്കെട്ട് ഇരുന്ന് അതിൻ്റെ ഐഡിയാസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് കറെക്റ്റായിട്ട് വെട്ടി അതിൻ്റെ ഷേയ്പ്പ് എടുത്ത് കളറൊക്കെ ചെയ്ത് വരച്ച് നല്ല നല്ല തോട്ട്സൊക്കെ എഴുതി ഒരാൾക്ക് സമ്മാനിക്കുന്ന ആ അത്ര വലിയ ഒരു ഫീല് ഒന്നും ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഇതിലൊന്നും കിട്ടാറില്ല ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിലക്കെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരുപാട് വർക്കുകൾ ഇങ്ങനെ പൂവുണ്ടാക്കാം അങ്ങനെ ഒക്കെ ഒത്തിരി ചെയ്യാറുണ്ട് ഇപ്പോൾ ഉള്ളവർക്കൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയില്ല അത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ വലിയ ഒരു മിസ്സിംഗാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫുൾ എന്താ എല്ലാം അവർ യുട്യൂബ് നോക്കി അങ്ങനെയൊക്കയാണ് അവർ എന്തെങ്കിലും ചെയ്താൽ തന്നെ ചെയ്യുക പക്ഷേ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ഒരു ഒരു ഒരു ഇമേജ് കണ്ട് അതിനനുസരിച്ച് നമ്മളാ ആ മനസ്സിൽ കണ്ടതിനെ ഒരു പേപ്പറിലേക്ക് ആക്കി അതായത് അതിനെ വെട്ടി കളറെല്ലാം കൊടുത്ത് ഭംഗിയാക്കി നമ്മളൊരാൾക്ക് സമ്മാനിക്കുക എന്ന് പറയുന്നത് മറ്റെന്തിനെ കഴിഞ്ഞും വിലമതിച്ചത് തന്നെയാണ്